ഹലോ സാർ ഞാൻ അടുത്ത വെള്ളിയാഴ്ച്ചത്തേക്ക് ഒരു ഊബറ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് ഒര് അയ്യായിരം രൂപ അഡ്വാൻസും കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങക്കൊരു ഹോസ്പിറ്റൽ കേസ് വന്നത് കാരണം ആ അന്നത്തേക്കുള്ള യാത്ര മാറ്റി വെച്ചു അപ്പോൾ ആ തന്ന അഡ്വാൻസ് തുക അയ്യായിരം രൂപ എനിക്ക് തിരിച്ച് തരാമോ ഇനി ഈയൊരു രു രണ്ടാഴ്ച്ച ആ രണ്ടാഴ്ച്ച കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ ആ ട്രിപ്പ് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് അന്നത്തേക്ക് നമുക്ക് വീണ്ടും ഞാന് ആ ഊബറ് ബുക്ക് ചെയ്യാം അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് എനിക്കിപ്പോൾ ഞാന് ഇതിന് അഡ്വാൻസ് തന്ന ആ അയ്യായിരം രൂപ എനിക്ക് തിരിച്ച് തന്നാല് വളരെ ഉപകാരമായിരുന്നു